പത്തനംതിട്ട ജില്ലയിലെ വളരെ അധികം പ്രധാന്യമുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് തിരുവാറന്മുള പാര്ത്ഥസാരഥി ക്ഷേത്രം ആറന്മുള അമ്പലമെന്ന് പറയുമ്പോൾത്തന്നെ അവിടുത്തെ ഏറ്റവും വലിയ ഉത്സവമായിട്ടുള്ള അതായത് ആറന്മുളക്കാര്ക്ക് അല്ലെങ്കിൽ പത്തനംതിട്ട കോഴഞ്ചേരി ഭാഗത്തുള്ളവര്ക്കൊക്കെ ഓണത്തിനേക്കാളും വലിയൊരു ഉത്സവമാണ് അവിടുത്തെ വള്ളസദ്യ ആറന്മുള വള്ളസദ്യയെന്ന് പറയുമ്പോൾ ഏകദേശമൊരു ജൂലൈ അവസാനം തുടങ്ങി ഒക്റ്റോബർ വരെ നീണ്ടു നിൽക്കുന്നൊരു വലിയ ആഘോഷം തന്നെയാണ് തിരുവാറന്മുളയപ്പന്റെ അല്ലെങ്കില് ആറന്മുള ക്ഷേത്രത്തിന്റെ കീഴിൽ വരുന്ന അമ്പത്തിരണ്ട് കരകളുടെ പള്ളിയോടങ്ങൾ അതായത് ചുണ്ടന്വള്ളങ്ങൾ അതിനുവേണ്ടി ഭക്തർ വഴിപാടായിട്ട് സമര്പ്പിക്കുന്ന ഓരോ വള്ളത്തിനും കൃഷ്ണനുംകൂടി വഴിപടായിട്ട് സമര്പ്പിക്കുന്ന ഒന്നാണ് വള്ളസദ്യ ഈ വള്ളസദ്യയ്ക്ക് അകമ്പടിയായിട്ട് അതായത് ഏകദേശമൊരു അൻപത് മുതല് നൂറ് ആള്ക്കാർ വരെ ഒരു വള്ളത്തിൽ തുഴഞ്ഞ് പമ്പയാറ്റില്ക്കൂടി ആറന്മുള്ള അമ്പലത്തിലെത്തി ഈ വഴിപാടുകാർ അവരെ സ്വീകരിക്കും നേരത്ത് അകമ്പടിയായിട്ട് പാടുന്ന ഒരു പാട്ടാണ് ആചാരങ്ങളുമായി വളരെ അധികം ബന്ധപ്പെട്ടും കൃഷ്ണന്റെ കഥകളുമായിട്ട് ബന്ധം ബന്ധിപ്പിച്ചും പാടുന്ന ഒരു പാട്ടാണ് പാടുന്ന പാട്ടുകളാണ് വള്ളപ്പാട്ട് എന്നു പറയുന്നത് ആലപ്പുഴ ശൈലിയിലൊക്കെയുള്ള വഞ്ചിപ്പാട്ടില് നിന്നും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ആറന്മുള വള്ളപ്പാട്ടിന് ഉണ്ട് ആ താളത്തിലായിക്കോട്ടേ അത് പാടുന്ന രീതിയിൽ ചില ലിറിക്സ് അങ്ങനത്തെ പലപല വ്യത്യാസങ്ങൾ കണ്ട് വരുന്നുണ്ട് അതിലേറ്റവും ഇഷ്ടമുള്ളതെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് അത് ആറന്മുള ശൈലിയിൽ പാടുന്നത് വളരെയധികം ഇഷ്ടമുള്ളൊരു ഇതാണ് കുചേലന് കുചേലന്റെ ദാരിദ്ര്യത്തില് നിന്നും മക്കളേയും ഭാര്യയേയുമൊക്കെ രക്ഷിക്കാന് വേണ്ടിയിട്ട് തന്റെ കുട്ടിക്കാലത്ത് സുഹൃത്തായിരുന്ന കൃഷ്ണനെ കാണാന് ഒരു ചെറിയ അവില്പ്പൊതിയൊക്കെ ആയിട്ട് വളരെയധികം ദുര്ഘടമായ എന്താ പറയുക കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പാടുപെട്ട് കൃഷ്ണന്റെ അടുത്ത് ദ്വാരകയിലെത്തുന്നതും ദ്വാരകയിൽച്ചെന്ന് കൃഷ്ണനെ കാണുന്നതും കൃഷ്ണന് തന്റെ സമ്പത്തും അല്ലെങ്കില് തന്റെ കൂട്ടുകാരനെ കണ്ട സന്തോഷവും ഒക്കെ അതിനോടൊപ്പംതന്നെ ആ കൂട്ടുകാരന് വളരെ അധികം ദാരിദ്രം മാറി മുന്നോട്ട് വരാനുള്ള സമ്പത്തൊക്കെ കൊടുക്കുന്നതും എല്ലാം കൂടെ ചേര്ത്ത് വരുന്ന അത് ആ ഒരു കഥ ആണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലുള്ളത് അത് വള്ളപ്പാട്ടിന്റെ രൂപത്തിൽ വള്ളസദ്യയുടെ സമയത്ത് ഇങ്ങനെ ആറന്മുള അമ്പലത്തിൽച്ചെന്ന് നിന്ന് കേൾക്കുന്നത് തന്നെ വളരേയധികം ഒരു എന്താ പറയുക മറക്കാനാവാത്തൊരു അനുഭൂതി തന്നെയാണ് തരുന്നത് പാട്ടിന്റെ വരികളായിക്കോട്ടെ പാട്ട് പാടുന്ന രീതികളായിക്കോട്ടെ അതും വള്ളപ്പാട്ടെന്ന് പറയുമ്പോള് ഒരാൾ പാടിക്കൊടുക്കുകയും അതിനൊപ്പം പത്തോ ഇരുപതോ ഒക്കെ ഒരുപാട് ആള്ക്കാർ ഒരുമിച്ച് നിന്ന് ഏറ്റുചൊല്ലുന്ന ഒരു സംഗീത രീതിയാണ് അതുകൊണ്ടുതന്നെ അത് കേൾക്കാനും അതിന്റെ കൂടെ പാടാനും ഒക്കെ വളരെയധികം എന്താപറയുക സന്തോഷം നല്കുന്നൊരു കാര്യമാണ് അമ്പലത്തിന്റെ ആ ഒരു അന്തരീക്ഷവും ദൈവീകമായൊരനുഭൂതിയും അതിലൂടെ കൃഷ്ണന് വേണ്ടിയിട്ട് ഈ പാട്ട് പാടുന്നതും താളം പിടിക്കുന്നതും വള്ളത്തേൽ വരുന്നതും വള്ളസദ്യ കഴിക്കുന്നതും അതേപോലെതന്നെ വള്ളസദ്യ സദ്യ നടക്കുന്ന സമയത്ത് വള്ളപ്പാട്ട് വള്ളപ്പാട്ടിന്റെ വരികൾ ഓരോരോ വിഭവങ്ങളായിട്ട് വിഭവങ്ങളുമായിട്ട് ബന്ധിപ്പിച്ച് പാടുന്ന രീതിയും ആറമ്മുളയിലുണ്ട് അതായത് വള്ളസദ്യയെന്ന് പറയുമ്പോൾ ഏറ്റവും വലിയൊരു അതായത് ഗിന്നസ് റെക്കോഡിൽ വരെ വന്നിട്ടുള്ള വലിയൊരു സദ്യയാണ് അതിൽ അറുപത് ഏകദേശം അറുപത്തിനാലോളം വിഭവങ്ങൾ ഒരിലയില്ത്തന്നെ വിളമ്പി കിട്ടുന്ന ഒരു വലിയൊരു സദ്യയാണ് അപ്പം ഇതിലെ ഓരോ വിഭവങ്ങളും അത് പലതാകാം കരിമ്പിന് കഷ്ണമാകാം പാളത്തൈരാകാം അച്ചാറാകാം പലതരം പായസമാകാം ഒരുപ്പേരിയാകാം എന്തുമാകാം അതെല്ലാം ഈ വള്ളപ്പാട്ടിന്റെ പാട്ടിന്റെ കൂടെ അതിന്റെ അതേ ഈണത്തില് അതേ താളത്തില് വരികൾ മാറ്റി വള്ളത്തേൽ വരുന്നവർ പാടി ചോദിച്ച് മേടിച്ച് കഴിക്കുന്ന ഒരു രീതി അത് ആറന്മുളയില് മാത്രം കണ്ടുവരുന്നൊരു ആചാരവും അനുഷ്ഠാനവും ഒരു രീതിയുമാണ് അതെല്ലാം ഈ വള്ളപ്പാട്ടിന്റെ കൂടെയാണ് ഇത് നടക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ പാട്ടിലെ വള്ളപ്പാട്ടെന്ന് പറയുന്നത് വളരെയധികം പ്രത്യേകത നിറഞ്ഞതാണ്